കേരളത്തിലെ വിനോദ സഞ്ചാരികൾക്കറിയാത്ത നിരവധി ബീച്ചുകൾ നമ്മുടെ കേരളത്തിലിന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ കുറേ എണ്ണങ്ങളാണ് കോഴിക്കോട് ബീച്ച് ആലപ്പുഴ ബീച്ച് വർക്കല ക്ലിഫ് വർക്കല ക്ലിഫെന്നൊക്കെ പറയാനാണെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വളരെ വളരെ വിനോദങ്ങൾ നൽകാവുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് വർക്കല ക്ലിഫെന്ന് പറയുന്നത് കുറേ ഹോട്ടലുണ്ട് അതുപോലെ തന്നെ റിസോർട്ടുണ്ട് ആൾക്കാർക്ക് താമസിക്കാനും സൗകര്യങ്ങളൊക്കെ ഉള്ള നിരവധി നിരവധിയെന്ന് വെച്ചാൽ നിരവധി ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ വർക്കല ക്ലിഫിൽ എന്റെയനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഒത്തിരിയുണ്ട് പിന്നെയൊന്ന് പറയാനാണെങ്കിൽ പാപനാശൻ ബീച്ച് തിരുവനന്തപുരത്ത് തന്നെ സ്ഥിതിചെയ്യുന്നതാണ് പാപനാശം ബീച്ച് അങ്ങനെയാർക്കും അറിയത്തില്ല എന്നിരുന്നാൽപ്പോലും നല്ലൊരു ബീച്ചാണ് അവിടെ സംസ്കാരങ്ങൾ നമ്മുടെ ഹിന്ദുമത സംസ്കാരം സംസ്കാരം അനുബന്ധിച്ചു വരുന്ന നമ്മുടെ മരണ മരണ മരണാനന്തര ചടങ്ങുകളെല്ലാം അവിടെയാണ് നടക്കുന്നത് പാപനാശം ബീച്ചിലാണ് നടക്കുന്നത് പിന്നെ കോവളം ബീച്ച് കോവളം ബീച്ചിൽ തുണിക്കടകൾ കുറേയുണ്ട് അവിടെയൊക്കെ നമുക്ക് ആവശ്യമായ വിനോദസഞ്ചാരികൾക്കെല്ലാമാവശ്യമായ റിസോർട്ടും കാര്യങ്ങളുമെല്ലാം കിട്ടുന്നതാണ് കോവളം ബീച്ച് ശംഖുമുഖം ബീച്ച് അങ്ങനെ കുറേ വിനോദ സഞ്ചാരികൾക്ക് മറ്റെ നീന്തലും അതുപോലെ സൂര്യസ്നാനവും ഒക്കെ കിട്ടാനും ജലവിനോദങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റിയ നല്ല നല്ല ബീച്ചുകൾ ഇന്ന് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ വിനോദസഞ്ചാരികളങ്ങനെ അവിടെയൊന്നും പോവാറില്ലെന്നാണ് പിന്നൊന്നാണ് അഴീക്കൽ ബീച്ച് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ ബീച്ച് അഴീക്കൽ ബീച്ചിൽ ഇഷ്ടം പോലെ ഭക്ഷണം ഭക്ഷണശാലകൾ അതുകൂടാതെ തന്നെ വിനോദസഞ്ചാരികൾക്ക് വന്ന് സ്നാനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു സമൂഹവും അതും അതുകൂടാതെ തന്നെ ഒരു നല്ലൊരു നല്ലൊരു കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കൊല്ലത്തെ അഴീക്കൽ ബെച്ചെന്ന് പറയുന്നത് അവിടെയൊക്കെ വിനോദസഞ്ചാരികൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വന്നു പോകുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതൊക്കെ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കേരളത്തിലേറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് കൊല്ലത്തെ അഴീക്കൽ ബീച്ച് അഴീക്കലൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളാണ് മണലാണെങ്കിലും അവിടുത്തെ മണലെല്ലാം നല്ലതാണ് അങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥലമൊന്നുമല്ല അഴീക്കൽ അഴീക്കൽ കടൽപ്പുറമെന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ കേരളത്തിലെ പല പല അങ്ങും ഇങ്ങുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി കടൽപ്പുറങ്ങളുണ്ട് അവിടെയൊന്നും നമ്മുടെ കേരളത്തിൽ വരുന്ന വിനോദസഞ്ചാരികൾ വന്നുപോയതായിട്ട് എന്റെ അറിവിലില്ല എല്ലാവരും വന്ന് കൂടുന്നത് ഈ ശംഖുമുഖം പോലുള്ള വലിയ വലിയ വലിയ ബീച്ചുകളിലൊക്കെയാണ് അതൊന്നും നമ്മുടെ കേരളത്തിലെ എന്താണ് വിനോദ സഞ്ചാരത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല ഇതൊക്കെ പിന്നോട്ട് വലിക്കുകയാണ് ബാക്കിയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഒക്കെ വച്ച് നോക്കുകയാണെങ്കിൽ പിന്നോട്ട് വലിക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് എല്ലാ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും എടുത്തു പറയാനാണെങ്കിൽ ഈ ബീച്ചുകൾ എടുത്തു കാണിക്കേണ്ടതാണ് ബീച്ചിലാണേറ്റവും നല്ല നമുക്കെന്ന വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് ബീച്ച് വൈകുന്നേരം നാലുമണി കഴിഞ്ഞാൽ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് ബീച്ച് ആ ബീച്ചിൽ വന്ന് കുറേയുണ്ട് ഈ ആൾക്ക് ആളുകൂടാതെ കിടക്കുന്ന നിറയെ ബീച്ചുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവിടെയൊക്കെ വിനോദസഞ്ചാരികൾ വന്നാൽ എന്താണ് ഏറ്റവും നല്ല കാര്യമാണ്